ഹലോ ഹലോ യെസ് അതെയതെ ഹോട്ടൽ ആണ് പറഞ്ഞോളൂ

ആ ആ ആ ആ ആ ആ ആ ആ കേറ്ററിംഗ് സർവീസുണ്ട് പിന്നെ ഫുഡ് ഓർഡർ അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതുപോലെ പലരും ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട് നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു ശരിയായിട്ടും ആ ആ ആ ആ ആ നമുക്കിവിടെ പിന്നെ ഈ ബിരിയാണി കൂടാതെ ബി ബിരിയാണി തന്നാണേലും ബീഫ് ചിക്കന് ഫിഷ് മട്ടന് അങ്ങനുള്ള പിന്നെ വെജിറ്റബിള് അങ്ങനെയുള്ള ഐറ്റംസെല്ലാവുണ്ട് അതുപോലെ തന്നെ ഡിന്നറ് തന്നെ ഫുൾ ഡിന്നറുണ്ട് ഹാഫ് ഡിന്നറുണ്ട് അല്ലെങ്കിൽ ഊണ് മാത്രമുണ്ട് അതുപോലെ ഏതു രീതിയിൽ ഉള്ളതാന്ന് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാൽ പ്ലേറ്റിനനുസരിച്ച് ചെയ്തു തരുന്നതാണ് എത്ര പ്ലെ എത്ര എത്ര എത്ര പേർക്ക് വേണമെന്നുള്ളത് പറഞ്ഞാൽ മതി അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും

അതെ ഹ ഹ ആ ആ തീർച്ചയായിട്ടും പിന്നെ റസ്റ്റോറൻറ്റിൽ വരുവോ അല്ലെങ്കിൽ പിന്നെ ഇതിലൂടെ വിളിച്ച് ബുക്ക് ചെയ്ത് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല കാരണം ഡേയിറ്റിനു പ്രശ്നമൊന്നുമില്ല ഏത് ഡേയിറ്റിലും നമ്മൾ പിന്നെ ഓർഡറ് സ്വീകരിക്കുന്നതാണ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനനുസരിച്ച് എന്നാൽ നല്ല ക്ലിയറായിട്ടും ഉത്തരവാദിത്വത്തോടുകൂടിയും തന്നെ സാധനങ്ങൾ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എത്തിക്കും

താങ്ക് യൂ താങ്ക് യൂ ഏ

തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഇത് മനസ്സിലാക്കുന്നു അത് ആ ഒരു ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ആ ഒരു സന്തോഷത്തോടുകൂടി തന്നെ നല്ല ക്ലിയറായിട്ടും വൃത്തിയായിട്ടും ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ ഒരു ഇതിൽ വരുമ്പോഴത്തേക്കും അതിൻറ്റേതായിട്ടുള്ള ഡിസ്കൗണ്ടിലും കാര്യങ്ങളിലുവൊക്കെ നമുക്ക് ക്ലിയറാക്കി കൊടുത്തു വിടാം കുഴപ്പമൊന്നുമില്ല എന്തായാലും വിളിച്ചതിൽ നന്ദി സന്തോഷം ആ അപ്പോൾ ഇത് നേരി ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി ആ ഓക്കെ ഓക്കെ ആ ഞാൻ വിളിക്കാം